പൊതുവെ ഇപ്പോൾ ചിത്രം വരയ്ക്കാനുള്ള പ്രക്രിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രതലത്തിലാണ് ഇപ്പോൾ പേപ്പറിൽ ആണോ കാൻവാസിലാണോ ചുവരിലാണോ എവിടെയാണ് ചിത്രം വരയ്ക്കേണ്ടത് അത് കറക്റ്റ് നല്ല വൃത്തിയുള്ളതാണോ എന്ന് നമുക്ക് നോ നോക്കി പരിശോധിച്ചെടുക്കുകയാണ് വേണ്ടത് നമുക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണോ എന്ന് നോക്കുക അതിനുശേഷം നമുക്ക് വേണ്ട ഡിസൈനുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കുക എന്താണോ നമ്മൾ വരയ്ക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് എന്താണെന്ന് നോക്കുക അതിനുശേഷം അതിനു വേണ്ട എന്താണ് പറയുക കളേഴ്സും പെൻസിലുകൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ സെലക്ട് ചെയ്തിട്ട് എല്ലാം അറേഞ്ച് ചെയ്തു വയ്ക്കുക അതിനുശേഷം ആണ് നമ്മൾ വരയ്ക്കേണ്ട പ്രതലത്തിൽ ഉളള സബ്ജെക്ട് നോക്കിയിട്ട് അത് വരയ്ക്കുക അതാണ് മെയിൻ ആയിട്ട് ചിത്രം വര നമ്മൾ കണ്ടുവരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ചിത്രം സാധാരണ നമ്മൾ എങ്ങനെയാണോ വരയ്ക്കേണ്ടത് എങ്ങനെയാണോ വരയ്ക്കേണ്ടത് അതുപോലെയാണ് വരയ്ക്കാറ് അപ്പോൾ അതിന് അനുസരിച്ച് ഇതാക്കുക ഇത്രയും കാര്യങ്ങളാണ് സാധാരണ ചിത്രം വരയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ അടുത്തിടെ വരച്ചൊരു ചിത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടും വരച്ചിരിക്കുന്നത് ഫോർ ഇൻറ്റു ഫോർ ജീപ്പിൻറ്റെ പടമാണ് അത് ഞാൻ മെയിൻ ആയിട്ട് വരച്ചത് പെൻസിൽ ഉപയോഗിച്ച് തന്നെയാണ് പെൻസിൽ ഉപയോഗിച്ചിട്ട് ആണ് ഞാൻ അത് വരച്ചത് അത് അപ്പോൾ ഞാൻ പേപ്പർ ആദ്യം എടുത്തതിനുശേഷം അതിനകത്ത് പെൻസിൽ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുകയാണ് ചെയ്തത്